ടൂറു പോകാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഓരാളാണ് ഞാൻ എനിക്ക് ഏത് ടൈമിലും ഏത് എത്ര നമുക്ക് പോകാനൊക്കെ എപ്പോഴൊക്കെ അവസരം കിട്ടുന്നോ ആ അവസരമൊക്കെ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഏത് ടൈമിലും പോകാൻ എനിക്ക് ഇഷ്ടമാണ് പൊതുവേ എനിക്ക് നമ്മുടെ നാട്ടില് ചൂടുള്ള ടൈമില് ടൂറ് പോകുന്നത് നമ്മള് ഊട്ടി കൊടൈക്കനാൽ അങ്ങനത്തെ പ്ലേസ് നമുക്ക് തണുപ്പുള്ള സ്ഥലമാണല്ലോ അപ്പം ഇവിടെ ചൂടാകുമ്പോൾ നമുക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ നല്ല ഒരു ഇതാണല്ലോ എക്സ്പീരിയൻസ് ആണല്ലോ അപ്പം എനിക്ക് അങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞാൻ അധികവും ഊട്ടി കൊടൈക്കനാൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ അധികവും പോകാറ് അപ്പം നമുക്ക് ഇവിടുന്ന് പോകുമ്പോൾ അവിടെ എത്തുമ്പോൾ തന്നെ ആ ഒര് ക്ലൈമറ്റ് മാറുന്നത് നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും ആദ്യത്തെ പ്ലേസില് പോകുമ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒര് ഇതാണ് നമുക്ക് ഊട്ടിയൊക്കെ ആകുമ്പോൾ നമുക്ക് പെട്ടന്ന് പോകാനും വരാനും മലപ്പുറത്തു നിന്ന് ഊട്ടിയില് രാവിലെ കാലത്ത് പോയാൽ വൈകിട്ടാകുമ്പോൾ തിരിച്ച് വരാൻ കഴിയും അതുകൊ അങ്ങനെ ഒരു ഇതുള്ളത് കൊണ്ട് നമുക്ക് അധികവും നമ്മള് ഊട്ടി തന്നെയാണ് തെരഞ്ഞെടുക്കുന്നത് രാവിലെ പോയി വൈകിട്ട് വരാൻ പറ്റുന്നൊരു പ്ലേസ് ആണല്ലോ നമുക്ക് കുറഞ്ഞ ചെലവിലും പോയി വരാൻ കഴിയും ഊട്ടിയൊക്കെ ആകുമ്പം നമുക്ക് അത്ര ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പോകുകയും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടും ഇല്ല ക്യാഷും വലിയ ചിലവൊന്നുമില്ല നമുക്ക് പോയി വരാൻ കഴിയുന്നുണ്ട് എനിക്ക് ഞങ്ങൾ അധികവും ഊട്ടിയിലാണ് പോകാറ് ഫാമിലിയായിട്ടാണെങ്കിലും ഞങ്ങള് ഹസ്ബെന്റിൻ്റെ കൂടെയാണെങ്കിലും കുട്ടികള് കുട്ടികള് ഫാമിലിയായിട്ട് പോകുവാണെങ്കിലും അധികവും ഊട്ടിയിലാണ് പോകാറ് കുട്ടികൾക്കും ഭർത്താവിനാണേലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകുന്നത് അപ്പം ഞങ്ങളെപ്പോഴും തെരഞ്ഞെടുക്കും ഊട്ടി തന്നെയാണ് പിന്നെ നമുക്ക് വീട്ടില് തന്നെ ഇവിടെ വർക്ക് വീട് ജോലി ഒക്കെയായത് കൊണ്ട് നമുക്ക് എപ്പഴാണ് നമ്മള് ഫ്രീ ആകുന്നത് ആ ഫ്രീ ആകുന്ന ടൈമിലൊക്കെ നമ്മള് പുറത്ത് പോകാനും എന്ജോയ് ചെയ്യാനും നമ്മള് പരമാവധി ടൈം കണ്ടെത്താറുണ്ട് നമുക്ക് ഒരു വീട്ടിലിരുന്ന് മുഷിയണ്ട ഇപ്പം നമ്മള് പുറത്തു പോകാനുള്ള സമയം നമ്മള് കണ്ടെത്തുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്ക് പോകാറുമുണ്ട് അവിടേയും എൻജോയ് ചെയ്യാറുണ്ട് ഒരുപാട് ടൂറ് പോകാനും അവിടെ പോയി എന്ജോയ് ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്